ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഓർക്കുമ്പോഴ് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് മഹാത്മാഗാന്ധി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഒരു നേതാവ് എന്ന ഒര് നമുക്ക് എന്തെല്ലാമാണോ നമ്മള് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതൊക്കെയാണ് നമുക്ക് മഹാത്മാഗാന്ധിയിൽ നിന്ന് കിട്ടുന്നത് ലോകം ആദരിക്കുന്ന വ്യക്തി ഇന്നും ഒര് വിശുദ്ധനായൊരു മനുഷ്യൻ അതല്ലങ്കിൽ ലോക സൂര്യനസ്തമിക്കാത്ത ആ രാജ്യത്തോട് അഹിംസ സിദ്ധാന്തം കൊണ്ട് ഒരു തുള്ളി ചോര പൊടിയാതെ ഭാരതമാതാവിനെ സ്വാതന്ത്രയാക്കി സ്വാതന്ത്രയാക്കി തന്ന ആ വിശുദ്ധ കാൽപ്പാടുകളെ എങ്ങനെ മറക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അഹിംസ സിദ്ധാന്തം ഇന്നും എന്നും മനുഷ്യൻ്റെ ഓർമ്മയിൽ എങ്ങും മായാതെ തിളങ്ങുന്ന ലിപികളാൽ തങ്ങി നിൽക്കുന്നു എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ട് ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തില് പലരും ആയുധങ്ങളേന്തിയപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാ കാര്യമുണ്ട് ഞാൻ സമരം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ജനത ഇനിയും പക്വത വന്നിട്ടില്ല അതുകൊണ്ട് പക്വത വന്നിട്ട് ശേ വന്നതിന് ശേഷം ഇനിയും ഞാൻ ഈ സമരം ആരംഭിക്കുവൊള്ളു എന്ന് അങ്ങനെ ജനങ്ങളെല്ലാം ആദ്ദേഹത്തിൻ്റെ കീഴിൽ അണി നിരന്നു അങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ അഹിംസ സിദ്ധാന്തത്തിലൂടെ വിദേശ ഉൽപ്പന്നങ്ങളുടെ വിരോധത്തിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് അദ്ദേഹം നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഇന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്